എനിക്ക് ആ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അവ എല്ലാ മാസവും അടക്കുന്നതുമാണ് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ കുടുംബാങ്ങൾക്കും പല സമയങ്ങളും അതുപകാരപ്രതമായി വരാം വന്നിട്ടുമുണ്ട് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാശെട്ക്കാൻ സാധിക്കാത്ത നിമിഷങ്ങളിൽ അവ ഞങ്ങളെ വളരെ അധികം സഹായിച്ചിട്ടുമുണ്ട് അത് ഉപയോഗിച്ച് കൊണ്ട്തന്നെ ഞങ്ങൾക്ക് പല കാര്യങ്ങൾളും ഞങ്ങളുടെ ഹെൽത് ആരോഗ്യപരമായ പഴ പല കുഴപ്പങ്ങൾക്കും അത് അനുയോജ്യമായിത്തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞു എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു ഹെൽത് ആരോഗ്യ ഇൻഷുറൻസ്സ് വീതം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കാര്യങ്ങളിൽ ആർക്കുമൊരു പേടിയോ ഭയമോ ഇല്ല കാരണം മാസം ഇത് അടയ്ക്കുന്നത് കൊണ്ട് എപ്പഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ടായാൽത്തന്നെ ആരോഗ്യപരമായി ഉണ്ടായാൽത്തന്നെ ഈ ഹെൽത് ഇൻഷുറൻസ് വഴി ഞങ്ങൾക്ക് വളരെയധികം ഉപകാരവും ഉപകാരം ലഭിക്കാറുമുണ്ട് ഉപകാരം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊര് പ്രശ്നവും പ്രശ്നങ്ങളും ഉണ്ടാവാത്തതാൽ ഞങ്ങൾക്ക് വളരെയധികം നന്നായി നല്ലതാണ് ഹെൽത് ഇൻഷുറൻസ് ഹെൽത് ഇൻഷുറൻസ് എന്ന് തോന്നുന്നു കുടുംബാങ്ങൾക്ക് വയസായവർക്ക് അടക്കം ഹെൽത് ആരോഗ്യപരമായി ഇൻഷുറൻസ്സ് ഉണ്ട് എൻ്റെ ഒരു പതിനെ എൻ്റെ എനിക്ക് ഒര് അഞ്ച് വയസായപ്പം തൊട്ട് തന്നെ എനിക്ക് ആരോഗ്യം ഇൻഷുറൻസ്സ് എടുത്തിട്ടുള്ളതിനാൽത്തന്നെ പല സമയങ്ങളിലും എനിക്ക് വയ്യാണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാം ആ ഹെൽത് ഇൻഷുറൻസ് വഴി ഞങ്ങൾക്ക് അത് ക്ലെയിം ചെയ്ത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ സാധിച്ചു ഹെൽത് ഇൻഷുറൻസ് എപ്പഴും ഒര് വ്യക്തിക്ക് ഉള്ളത് വളരെയധികം നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരഭിപ്രായം അതുപയോഗിച്ച് കൊണ്ട്ത ഉപയോഗിച്ചത് കൊണ്ട്തന്നെ പല ഉപഹാരങ്ങളും നമുക്ക് ഉണ്ടാകുന്നുമുണ്ട്